കലാകാരന്മാരെയും കലകളെക്കുറിച്ചും അറിയാൻ കലാക്ഷേത്രയിലും അതേപോലെത്തന്നെ കലാഭവനിലും പോയിട്ടുണ്ട് അവിടെ അധികം കലാകാരന്മാരും ഉണ്ട് അവരെക്കുറിച്ച് അവർ നടത്തുന്ന പ്രോഗ്രാമുകളും പലയിടത്തും കാണാനും പോയിട്ടുണ്ട് പിന്നെ അവരുടെ അനുഭവങ്ങളും അവരുടെ അവതരണ ശൈലിയും നോക്കി മനസ്സിലാക്കാറുണ്ട് അതെപോലെത്തന്നെ അവരോട് അടുത്തിടപഴകുമ്പോൾ അവർക്കുണ്ടാവുന്ന അനുഭവങ്ങളും നമ്മളോട് പങ്കു വെക്കാറുണ്ട് അതേപോലെതന്നെ ചിത്രശാലകളും ചിത്രശാലകളിലും ചിത്ര പ്രദർശനത്തിനൊക്കെ പോവാറുണ്ട് നല്ല അനുഭവങ്ങളാണ് അവിടെ നിന്നും കിട്ടുന്നത് അവരുടെ രീതികളും അവതരണ ശൈലിയും നമ്മളെ ഏറെ സന്തോഷിപ്പിക്കാറുണ്ട് അതനുസരിച്ച് അവർക്ക് പ്രോത്സാഹനങ്ങളും കൊടുക്കാറുണ്ട് പിന്നെ അവരോട് നല്ല അഭിമാനമാണ് അവരെക്കുറിച്ചോർക്കുമ്പോൾ